ഏത് തരം വിദ്യകളും തുന്നൽ രീതികളാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും വെല്ലുവിളിയേറിയതോ പ്രതിഫലദായകമായി തോന്നുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഖാദി ഖാദി തുണിയുടെ കാര്യത്തിലാണ് കാരണം അത് കൈത്തൊഴിലാണ്

ഇതുവരെ ചെയ്തതില് ബുദ്ധിമുട്ടേറിയ വസ്ത്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാലും ഖാദിയുടെ കാര്യത്തിലാണ് കാരണം നമ്മളതിൻ്റെ നൂലുകള് എടുക്കുക എണ്ണി എടുക്കുക കൈകൊണ്ട് തന്നെ നെയ്യുക അതൊക്കെ വളരെ ടാസ്ക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് താനും അതിനെത്ര സമയം ചിലവഴിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു മൂന്നും നാലും അഞ്ചും മണിക്കൂറുകളൊക്കെ ചിലവഴിക്കേണ്ടി വന്ന ഒരു ഡ്രസ്സ് തന്നെ നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒത്തിരിയേറെ ടാസ്ക് നിറഞ്ഞ ഒന്നായിട്ടാണ് തോന്നുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ട് ആ ജോലിക്ക് ഒത്തിരിയേറെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടിയതായിട്ട് വരും കോൺസൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അത് വളരെയധികം ടാസ്ക്കാണ്